മൃഗങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കുളമ്പ് രോഗവും ഏവിയൻ ഇൻഫ്ലുൻസ അങ്ങനെ ഉള്ളതൊക്ക നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ കൂടുതലും മൃഗങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക അവർ അവർക്ക് അതിന് രോഗങ്ങളൊന്നും തന്നെ വരാത്ത അവസ്ഥയിലേക്ക് വരാത്ത തന്നെ സംരക്ഷിച്ച് കൊണ്ട് പോകാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് എന്തെങ്കിലുമൊരു ചെറിയ ലക്ഷണം കണ്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് അതിനുവേണ്ട വാക്സിനോ അല്ലെങ്കിൽ അതിനുവേണ്ട സംവിധാനം എന്താന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ നിന്നും നമുക്ക് രക്ഷപെടാനാവും അല്ലെങ്കിൽ രക്ഷപെടുത്താനാവും അതുപോലെ തന്നെ നമ്മൾ ശരി പ്രധാനമായിട്ടും എപ്പോഴും അത് അവയെ വളരെ വൃത്തിയുള്ളതായി പരിസരവും അല്ലെങ്കിൽ അവ അത് അതിൻ്റെ ചുറ്റുപാടും ഒക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്

അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ ഇങ്ങനെ ഉപ് ആക്രമിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് അ അതിനെ രക്ഷപെടുത്തി എടുക്കാനായിട്ട് സാധിക്കും